കൃഷി കാലാവസ്ഥ ശരിക്കും ബാധിക്കാറുണ്ട് കാരണം എന്താന്നു വെച്ചാൽ ഇന്ന് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ അല്ലെങ്കിൽ പ്രകൃതിയിൽ കണ്ടുവരുന്ന ഒരു ഇതാണ് അവസ്ഥയാണ് കാലാവസ്ഥാ വ്യതിയാനം എന്നു പറയുന്നത് അത് കൃഷിക്ക് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥകളല്ല ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് അതുകൊണ്ടു തന്നെ ഇങ്ങനെ അവസ്ഥ മാറി മാറി വരുമ്പോൾ ആ കാലാവസ്ഥക്കനുയോജിച്ച് ചിലപ്പോൾ നമ്മൾ മുൻകൂട്ടി ചിന്തിക്കുകയായിരിക്കും ഇന്നു മഴയാണെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത മൂന്നു മാസത്തേക്ക് ചിലപ്പം വെയിലാകാം ഇപ്പോൾ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന അതായത് മഴയത്തും വെയിലത്തും രണ്ടിലും നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള കൃഷികൾ അല്ലെങ്കിൽ ചെയ്യാൻ നമ്മളപ്പം ചിന്തിക്കാറുള്ളൂ അതു ചിലപ്പം നശിച്ചു പോകുന്നതാണെങ്കിൽ അതിനടുത്ത ഓപ്ഷൻ ഏതാണോ അല്ലെങ്കിൽ അതിനെ പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കൃഷി ഏതാണോ അങ്ങനെയുള്ള രീതിയിലുള്ള കൃഷി ചെയ്യാനായിട്ടു നോക്കും വാഴ കപ്പ അതൊക്കെ മഴയത്തും വെയിലത്തും അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അപ്പം നമ്മളങ്ങനെത്തെയുള്ള കൃഷി ചെയ്യാനാണ് കൂടുതലും ഞങ്ങൾ ശ്രമിക്കുന്നത് കാലാവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൃഷി ഏതാണോ അതാണ് കൂടുതലും ആലോചിച്ച് സാമ്പത്തിക നഷ്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ അതായത് ഉണ്ടാകാതിരിക്കാനുള്ള രീതി നോക്കി ചെയ്യുന്നു അതായത് ഇപ്പോൾ വാഴ മഴയത്തു നശിച്ചു പോകുന്ന ഒരു ആ ഘട്ടം വരുമ്പോൾ കപ്പ അവിടെ പിടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ കപ്പ പോകുമ്പോഴത്തേക്കും വാഴ ഒരു സൈഡിൽ അതായത് രണ്ടും കൂടി മിശ്രിതമായിട്ടു ചെയ്യാൻ പറ്റുന്ന രീതിയൽ കൃഷി ചെയ്യാൻ നോക്കും